ഇപ്പോൾ മലയാളത്തില് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ബുദ്ധിമുട്ട് ചെറുതായിട്ട് വന്നിട്ടുണ്ട് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമുക്ക് ചില വാക്കുകളൊന്നും നമുക്ക് പറയാൻ ചിലപ്പോൾ പറ്റതാ പറ്റാ പറ്റിയെന്ന് വരില്ല കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മളിപ്പം നല്ല സ്പീഡില് ഇപ്പം തന്നെ നമ്മള് സ്പീഡിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള തെറ്റുകളൊക്കെ സംഭവിക്കാം അപ്പം അതൊക്കെ ഭയങ്കര ഇപ്പം എന്താ പറയുക നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചിലത് നമുക്ക് വിക്കി പോവാം അതായത് നമ്മള് ഇപ്പോൾ ഒരു പ്രസംഗമോ അങ്ങനത്തെ എന്തെങ്കിലുക്കെ കാര്യങ്ങള് ചെയ്യുമ്പോഴാണെങ്കില് നമുക്ക് ചിലപ്പം ചില വാക്കുകളൊന്നും ചിലപ്പം കിട്ടണമെന്നില്ല അപ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളപ്പം നേരിടും നമുക്ക് പെട്ടന്ന് വിക്കി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാക്ക് കിട്ടാനൊക്കെ ഭയങ്കര പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നല്ല രീതിയില് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് ഇഷ്ട്ടം പോലെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ പലളി പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല രീതിയിലുള്ള ഒരു മലയാളം പറയുമ്പം ചെറുതായിട്ട് നല്ല രീതിയില് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഴായ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് പറയുമ്പം പിന്നെ ഇർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് കൂടുതലായിട്ടു ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം